ഇപ്പോൾ വാദ്യോപകരണങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ വായിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പണ്ടുകാലങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്ന താംബോലം എന്ന് പറയുന്നൊരു ഉപകരണമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ശിവൻ്റെ കയ്യിലുള്ള ഉടുക്ക് പോലത്തെ തോലുകൊണ്ട് നിർമിച്ച ഈ നാസിക് ഡോളു പോലത്തെ വലിയ സാധനമാണ് താംബോൽ എന്ന് പറയുന്നത് അപ്പം അതായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് അതിപ്പോൾ എൻ്റെ ആ അനുഭവം എന്ന് പറയാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായും ഈ ഉത്സവങ്ങൾ പോലുള്ള പരിപാടികൾക്കാണ് ഞാനീ വാദ്യോപകരണങ്ങൾ കൊണ്ടു ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഞാൻ എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നു പറയുമ്പോൾ കണ്ണൂര് ഞാനൊരു പ്രോഗ്രാമിന് പോയിരുന്നു അപ്പോൾ അവിടെ പോയ ജനങ്ങൾക്കായാലും എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമ് വല്ലാണ്ട് ഇഷ്ടമായി എന്നോടൊക്കെ വന്നിട്ട് നല്ല അഭിപ്രായമാണ് നാട്ടുകാരൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പോയിട്ട് എനിക്കൊരുപാട് സ്ഥലത്ത് നിന്നും എന്താ പറയുക ഒരുപാട് ആൾക്കാർ വന്നിട്ട് നല്ല പ്രോഗ്രാമാണ് എന്നൊക്കെ പറയുമ്പം നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട് പലപ്പോഴായി നാട്ടുകാരൊക്കെ നമ്മളോട് നല്ലൊരു അഭിപ്രായമാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനാകെ വാദ്യോപകരണമായിട്ട് ഉപയോഗിക്കുന്നത് താംബോല എന്ന് പറയുന്ന നാസിക്ഡോല് പോലത്തെ ഒരു ഉപകരണമാണ് അത് മാത്രമാണ് ഞാനിപ്പോൾ വാദ്യോപകരണമായിട്ട് ഉപദ്ര ഇപ്പോൾ എന്താ പറയുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം